ആ എനിക്ക് കുറച്ച് പഴവർഗ്ഗങ്ങൾ വേണമായിരുന്നു ഇത് ഇവിടെ ഉണ്ടോ ഓക്കേ എനിക്ക് ഒരു കിലോ മാങ്ങ വേണമായിരുന്നു എനിക്ക് അച്ചാർ ഇടാനായിരുന്നു മാങ്ങ അപ്പോൾ ഏതായിരിക്കും നല്ലത്

ഇല്ല ഒരു കിലോ മതി വേറെ ജാക്ക് ഫ്രൂട്ട് വേണമായിരുന്നു അയ്യോ മുറിച്ച് തരത്തില്ലേ അപ്പം അപ്പോൾ അതെങ്ങനെ ആണ് കണക്ക് കിലോ ആണോ ഒരു കിലോ ആയിട്ടാണോ ഓക്കേ എന്നാൽ പിന്നെ ഒരു കിലോ ചക്ക എടുത്തോ ഒരു ഇടത്തരം ചക്ക മതി അയ്യോ മൂന്നര കിലോ ആണെങ്കിൽ അത് വേണ്ടായിരുന്നെ ആ എനിക്ക് പിന്നെ പപ്പായ വേണമായിരുന്നു പപ്പായ ഒത്തിരി പഴുക്കാത്ത പപ്പായ മതി

ഒരു കിലോ വേണ്ട ഒരു കിലോയ്ക്ക് താഴെ ഉള്ളത് മതി ആ പിന്നെ ഒരു അര കിലോ പഴവും കൂടെ എടുത്തേരെ ആ ഏത്തപ്പഴം മതി ഒത്തിരി പഴുത്തത് വേണ്ട പക്ഷേ എന്നാലും അത്യാവശ്യം പഴുത്തത് ആ ഏത്തയ്ക്ക പൊരിക്കാനായിരുന്നു ഒരു രണ്ടര കിലോ എടുത്തോ ആ അത്രയും മതി ആ ഓക്കേ ശരി